ഒരു അദ്ധ്യാപകൻ ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ അതായത് സ്കൂളുകളിൽ ഇല്ലാതിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ആദ്യമായി ഒരു അധ്യാപകൻ താൻ പഠിപ്പിക്കുന്നത് അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒതുങ്ങേണ്ട ഒന്നല്ലന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളത് പഠിപ്പിക്കേണ്ടത് തന്നെയാണ് പക്ഷേ അതിന് പുറമേ അവർക്ക് ജീവിതത്തില ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ അധ്യാപകനിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് ടെക്സ്റ്റ് ബുക്ക് അവനൊരു അധ്യാപകൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവൻ പഠിക്കുന്നുണ്ട് അതുപോലെ അധ്യാപകൻ മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് കൂടിയാണ് അതായത് അധ്യാപകൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് അതായത് ജീവിതത്തിൽ ആവശ്യമായ മൂല്യങ്ങൾ മൂല്യങ്ങൾ ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒന്നും ലഭിക്കുകയില്ല അതെല്ലാം മറ്റൊരാളിൽ നിന്ന് മറ്റൊരു മുതിർന്ന ഒരാള നിന്നെ പഠിക്കേണ്ട ഒന്നാണ് അതായത് മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കണം അദ്ധ്യാപകരെ കാണുമ്പോൾ എഴുന്നേട്ട് നിൽക്കണം അതുപോലെ മറ്റുള്ള ആളുടെ സമ്മതമില്ലാതെ അവരുടെ സാധനങ്ങൾ നാം എടുക്കരുത് ഇതുപോലുള്ള മൂല്യങ്ങള ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല അതുപോലെ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൈ ഡീൽ ചെയ്യുന്നത് ഇതെല്ലാം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ടത് അദ്ധ്യാപക അധ്യാപക അധ്യാപകനിൽ നിന്നാണ് അതായത് ഈ ഈ വക കാര്യങ്ങളെല്ലാം ഒരു വിദ്യാർത്ഥി പഠിച്ചെടുക്കുന്നത് അവൻ്റെ അധ്യാപകൻ അധ്യാപകനിൽ നിന്നാണ് അതുപോലെ ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് അവൻ്റെ ചുറ്റുപാടിിൽ അവൻ എങ്ങനെ ആവണം അതൊരിക്കലും അവനൊരു ടെക്സ്റ്റ് ബുക്കോ മറ്റു പാഠപുസ്തകമോ ഒക്കെ പറഞ്ഞു നൽകുന്ന ഒന്നല്ല ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിനെല്ലാം പറ്റി അവൻ പഠിച്ചിരിക്കാം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പക്ഷേ ഇതിൻ്റെ പ്രായോഗികത ഇതെല്ലാം ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ടത് അവൻ്റെ അധ്യാപകനിൽ നിന്നാണ് സ്കൂളിലില്ലാത്ത കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവൻ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രായോഗികത അതായത് മറ്റുള്ളവരെ ബഹുമാനിച്ചു പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ നിന്നാണ് ബഹുമാനിച്ചു പഠിക്കണം ബഹുമാനിക്കണം ഒരു പക്ഷേ അവൻ പാഠ പുസ്തകത്തിൽ നിന്ന് പഠിച്ചേക്കാം പക്ഷേ അതിൻ്റെ പ്രായോഗികത അവൻ പഠിക്കേണ്ടത് ഒരു അധ്യാപനങ്ങളിൽ അധ്യാപകനിൽ നിന്നാണ് പക്ഷെ അത് സ്കൂളിലില്ലാതെ പോകുന്നതുകൊണ്ടാണ് മറ്റു പല ക്രിമിനൽ കേസുകളിലും സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾപെടുന്നത് അതായത് മദ്യം ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് അത് ഹാനികരമാണെന്ന് ഒരു വിദ്യാർത്ഥി സ്കൂൾ കാലത്ത് പഠിക്കണം പക്ഷെ അതിന് പറ്റിയ അവന് ആവശ്യമായ ബോധവൽക്കരണം നൽകുകയും അതുവഴി സമൂഹത്തിൽ നിൽക്കുന്ന ഇത്തരം വേണ്ട വൃത്തിയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി മാറി നിൽക്കാൽ ശ്രമിക്കുകയും ചെയ്യണം അതായത് പ്രായോഗിക വിദ്യാഭ്യാസമുണ്ടായൽ ഇത് എളുപ്പമാണ് ഇല്ലെങ്കിൽ ഇത് സമുദായത്തിൽ പെടുത്തുന്നതിൻ്റെ പങ്ക് ദുഷ്കരമാണ്